ഒരു നീണ്ട യാത്രയ്ക്ക് നീണ്ട ബൈക്ക് യാത്രയ്ക്ക് വേണ്ടി എന്തൊക്കെയാണ് തയ്യാറെടുക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും സാധനം ഒക്കെയാണ് കൂടെ കൊണ്ടുപോകാറുള്ളത് എന്ന് ചോദിച്ച് കഴിഞ്ഞാൽ മെയിനായിട്ടും നമ്മൾ ഡെയിലി യൂസിന് അതായത് ഡെയിലി യൂസ് രാവിലെ മുതൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാറുണ്ടോ അതിന് വേണ്ടി എല്ലാ സാധനങ്ങളും ഞാൻ എടുക്കാറുണ്ട് അതായത് പല്ല് തേക്കാൻ വേണ്ടിയിട്ട് ബ്രഷ് പേസ്റ്റ് അതുപോലെ ടങ് ക്ലീനർ അതിന് ശേഷം യൂസ് ചെയ്യാൻ ഫേസ് വാഷ് അതിന് ശേഷം യൂസ് ചെയ്യാൻ മോയ്സ്ചറൈസിങ് ക്രീംസ് അതുപോലെ എല്ലാ സാധനങ്ങളും പൊട്ട് തൊടാൻ പൊട്ട് പെൺകുട്ടികളാണെങ്കി പൊട്ട് തൊടാൻ പൊട്ട് കണ്ണഴുതാൻ കൺമഷി ഐലൈനറ് ഐ ഷാഡൊ ലിപ്സ്റ്റിക്ക് അങ്ങനെത്തെ സാധനങ്ങളെല്ലാം മെയിനായിട്ട് എടുക്കും പിന്നെ രണ്ടാമത്തെ നമുക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കണമെങ്കിൽ നമ്മൾ പുറത്തുനിന്നാണ് വേടിക്കുന്നതെങ്കിൽ വേടിച്ച് അഥവാ നമ്മൾ കടൽ റെസ്റ്റോറൻറീൽ ഇരുന്ന് കഴിക്കണമെന്ന് നിർബന്ധമില്ല എവിടെുന്നെങ്കിലും വേടിച്ച് മറ്റെടുത്ത് പോയിരുന്ന് കഴിക്കുക അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽനിന്ന് ഒരു നേരത്തെ ആഹാരം കൊണ്ടുപോകുവാണെങ്കിൽ പോലും കഴിക്കാൻ വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള യൂസ് ആൻ ത്രോ പ്ലേറ്റ്സോ അല്ലെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള പ്ലേറ്റ്സ് അതുപോലെ കപ്പ് സ്പൂണ് അത് ഈ ഐറ്റംസ് എല്ലാം എടുക്കും പിന്നെ പിന്നെ വേണ്ടി വരുന്നത് ഡ്രസ്സുകളാണ് ഡെയിലി യൂസിന് അതായത് നമുക്ക് നൈറ്റ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡ്രസ്സ് അതുപോലെ ട്രാവല് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡ്രസ്സ് എത്ര ദിവസമാണോ പോകാൻ ഉദ്ദേശിക്കുന്നത് അത്രയും ദിവസത്തേക്ക് വേണ്ടിയിട്ടുള്ള നൈറ്റ് യൂസ് ചെയ്യാനുള്ള ഡ്രസ്സും അതുപോലെ റൈഡിൻ്റെ ടൈമില് യൂസ് ചെയ്യാൻ വേണ്ടി ഡേ ടൈമിൽ യൂസ് ചെയ്യാനുള്ള ഡ്രസ്സും എടുക്കും പിന്നെ വേണ്ടത് വെള്ളം കുടിക്കാൻ ഒരു ബോട്ടിൽ വീട്ടിൽനിന്ന് ഇറങ്ങുന്ന സമയത്ത് വീട്ടിൽ നിന്നുള്ള ഒരു ബോട്ടില് വെള്ളം തന്നെ എടുക്കുക എടുക്കും പിന്നെ ഒരു കപ്പ് ഗ്ലാസ് ചെറിയ നമുക്ക് ആവശ്യം നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു കപ്പും ഗ്ലാസ്സും എടുക്കും പിന്നെ മെയിനായിട്ട് വേറൊരു കാര്യം പറയേണ്ടത് നമ്മുടെ മെഡിക്കല് മെഡിക്കലായിയിട്ടുള്ള ഡെയിലി പെട്ടെന്ന് എടുക്കേണ്ട സാധനങ്ങൾ അതായത് പാരസെറ്റാമോള് പാരസെറ്റാമോള് സിട്രസിൻ അങ്ങനെത്തെ ടാബലെറ്റ്സുകൾ മെയിനായിട്ട് എടുക്കും കാരണം നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും തലവേദനയോ തല ചുറ്റുന്ന അവസ്ഥയോ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ കഴിക്കാൻ ആവശ്യമായ ടാബ്ലറ്റ്സ് എല്ലാം എടുക്കും വേറൊരു കാര്യം പിന്നെ ഈ എന്താ പറയുക ക്ഷീണം തോന്നാതിരിക്കാനുള്ള മരുന്നുകളും അന്ന് എടുത്തുകൊണ്ട് പോകുവാനായിട്ട് ശ്രദ്ധിക്കാറുണ്ട് എത്ര ദൂരത്തേക്കാണ് പോകുന്നത് അത്ര ദൂരം കണക്കാക്കി തന്നെ ടാബ്ലെറ്റ്സ് എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കും കാരണം എന്നന്ന് വെച്ച് കഴിഞ്ഞാ ഒന്നോ രണ്ടോ സാധനം എടുത്തോണ്ട് പോയിട്ട് പിന്നെ നമ്മടെ അവസ്ഥ എന്താന്ന് അറിയത്തില്ല ഇന്നത്തെ കാലാവസ്ഥ അത് തന്നെയാണ് ഭയങ്കര ചൂടുള്ള കാലാവസ്ഥയാ ആ ഒപ്പം തന്നെ ഭയങ്കര എന്താ പറയുക വെയിലില്ലാത്ത മഞ്ഞ് മൂടി നിൽക്കാത്ത കാലാവസ്ഥയക്കെ ഉണ്ടാവാത്ത അങ്ങോട്ടും ഇങ്ങോട്ടും മാറി വരുന്ന ഒരു സമയമാണ് അപ്പം അത് കണക്കാക്കി അതിന് ആവശ്യത്തിനുള്ള ടാബ്ലെറ്റ്സും കാര്യങ്ങളും കയ്യിൽ കരുതണം പിന്നെ ഇടാനുള്ള ചെരിപ്പ് ഷൂവെങ്കിൽ ഷൂവ് ചൂടത്ത് യൂസ് ചെയ്യാൻ ഷൂ യൂസ് ചെയ്യാൻ പാടായിരിക്കും അപ്പം കുറച്ച് കംഫർട്ടബിളായിട്ടുള്ള ചെരിപ്പ് ചപ്പൽസ് യൂസ് ചെയ്യാനായിട്ടും ശ്രദ്ധിക്കാറുണ്ട്